നമ്മുടെ ഇവിടെ അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തിൽ ഏറ്റവും ഉള്ള യുവജനങ്ങൾ പിന്നെ വിദേശ രാജ്യങ്ങളിലോട്ടാണ് പോവാൻ താല്പര്യപ്പെടുന്നത് ഇവിടെ പി എസ് സി എഴുതിയിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് പി എസ് സി എഴുതി അവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടണം എന്നില്ല അവർക്ക് ഒരു ജോലിയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അത്രയായിട്ടുള്ള അവർക്ക് സാലറി അവർക്ക് ഒരു ദിവസത്തെ വേതനം വളരെ കുറവായിരിക്കും അപ്പം അവരെ എന്തു ചെയ്യാം ഖത്തർ പിന്നെ വിദേശ രാജ്യങ്ങൾ ദുബായ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേയ്ക്കാണ് ഇവിടെയുള്ള ഭൂരിപക്ഷം ആൾക്കാർ അവിടെ കമ്പ്യൂട്ടർ വർക്കിനോ അല്ലെങ്കിൽ വല്ല സൂപ്പർ മാർക്കറ്റിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി നഴ്സിങ്ങ് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം പോകട്ടെ നഴ്സിങ്ങ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു കുട്ടിയും വ്യക്തിയും ഒരിക്കലും നമ്മുടെ നാട്ടിൽ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവരുടെ പിന്നെ ജോലിയ്ക്ക് ജോലിയിനേക്കാളും കൂടുതൽ വേതനം ഇവിടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ വേതനം അവർക്ക് വിദേശ രാജ്യങ്ങളിലാണ് കിട്ടുന്നത് അപ്പം അവർ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലിയെടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്